ഹലോ ആ സാറേ പറ സാറേ ഞാൻ സൈറ്റിൽ ഉണ്ട് ആ സാറേ ഇന്നലെ ഒരു നമ്മുടെ ഒരു വർക്കർ താഴെ വീണിരുന്നു ആ മറ്റേ സ്റ്റേപ്പിൽ നിന്നേ അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ആശുപത്രി പോയി വന്നു ഇപ്പോൾ ഇങ്ങോട്ട് കയറിയേ ഉള്ളൂ ഞാൻ ആ പറ സാറേ സാർ നമുക്ക് ഇപ്പോൾ ഈ നിലവിലുള്ള ആൾക്കാരെ വെച്ച് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തായാലും അഡീഷണൽ ഒരു അഞ്ച് പേർ എങ്കിലും നമുക്ക് വേണം എന്നു വെച്ചാൽ ഇന്നലെ ഇപ്പോൾ ആ വീണത് നമ്മുടെ മെയിൻ മേസ്തിരി ആയിരുന്നു അപ്പം അതിനോട് പണിയാൻ നിൽക്കുന്ന ആൾക്കാർ കുറവാണ് ഇപ്പം മാത്രമല്ല ഇപ്പോൾ സൈറ്റിലേക്ക് സാധനം എത്തുന്നതും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വരുന്നത്

അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അഞ്ച് പേരെ എക്സ് എക്സ്ട്രാ ആൾക്കാരെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പണി ഇനി മുമ്പോട്ട് പോവുള്ളൂ ഇന്നത്തെ ഈ മഴയും കാരണം നമുക്ക് ഈ റാമ്പിൽ നിൽക്കാനും പറ്റില്ല പണി ചെയ്യാനും പറ്റില്ല ഈ ഉണക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ചാമ്പ് ഇട്ട് കുഴയ്ക്കാനും പറ്റില്ല അതാണ് വേറെ ഇത് ഇതിന്റെ ബാക്കി ഇതിന്റെ കമ്പി അതിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കമ്പി ഒക്കെ എന്തോ പൊട്ടി പോയെന്നോ അതെന്താണ് പ്രശ്നം സാർ അത് ക്വാളിറ്റി ഇല്ലാത്ത കമ്പിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം വന്നത് അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് നമുക്ക് അത് ഇപ്പം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കെട്ടുന്നത് അനുസരിച്ച് പിന്നെയും അത് പൊടിഞ്ഞ് പോകുന്നു ഇത് നിൽക്കുന്നില്ല ബലമില്ലാത്ത ഒരു കമ്പി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് അതെ അതും ഉണ്ട് പൊട്ടി പൊട്ടി പോകുന്നു അത് ഈ ക്വാളിറ്റി ഇല്ലാത്തതാണ് അത് പൊട്ടി പൊട്ടി പോകുന്നത് നമുക്ക് വരുന്ന സാധനം ഇട്ടു കൊടുക്കാതെ നമുക്ക് നിവൃത്തി ഇല്ലല്ലോ പണി മുന്നോട്ട് പോവേണ്ടേ പുതിയ ഇല്ല അതിനകത്ത് ഒരു പകുതി ഉണ്ട് ഒരു നാളെയും കൊണ്ട് തീരാനുള്ള പണി ഉണ്ട് ബാക്കി ഇനിയും ഉണ്ടോ അതെ സാർ അത്യാവശ്യമായിട്ട് ഈ പറഞ്ഞത് പോലെ ആൾക്കാരെ ഒന്ന് കൂട്ടാൻ അഞ്ച് പേരെ അത്യാവശ്യം വയ്ക്കണം അതിനു ശേഷം ഈ സാധനം ഇവിടെ നല്ല രീതിയിൽ ഇറക്കണം

ഓക്കെ അപ്പോൾ അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമറ്റ് അത്യാവശ്യം വേണം അതുപോലെ തന്നെ റാമ്പ് വയ്ക്കാനുള്ള ട്രക്കിന്റെ ആ ക്ലാംമ്പ് അതും വേണം മറ്റേ മെഷിൻ രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചേ പറ്റുള്ളൂ ഇനിയും വേണോ ആ പിന്നെ പക്ഷേ ഇനിയും കിടക്കുന്ന പണിയും അതുപോലെ തന്നെ ആ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് പണി തീർക്കില്ല മാത്രം അല്ല ഈ ഫുഡിന്റെ കമന്റ് ഓടി വന്നിട്ടുണ്ട് അവിടെ ആഹാരത്തിന് ഉള്ള സാധനങ്ങളില്ല ഇപ്പം ഇവിടെ

അത്യാവശ്യം ആയിട്ട് ഇതും എത്തിക്കുക അതുപോലെ തന്നെ ഹെൽമറ്റും എത്തിക്കുക ഈ പറഞ്ഞ ആൾക്കാരെ എണ്ണം കുറയ്ക്കല്ലേ അത്യാവശ്യം ആയിട്ട് അഞ്ചും ആറോ

ആ ഓക്കെ ഓക്കെ സാറേ ഇല്ല മറ്റ് കുഴപ്പങ്ങൾ ഒന്നും ഇല്ല ഓക്കെ അത് ഇന്ന് വൈകിട്ട് തന്നെ എത്തിക്കാൻ നോക്കണേ എല്ലാം ഓക്കെ ശരി ശരി